എനിക്ക് എന്റെ മോൾടെ കല്ല്യാണത്തിന് ആലോചിക്കാൻ വേണ്ടീട്ടായിരുന്നു അപ്പം അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടീട്ടായിരുന്നു പ്രീയും കൊടുക്കുന്നുണ്ടല്ലെ നമുക്ക് അപ്പക്ക് ഫോട്ടോഗ്രാഫിയിൽ തന്നെ തുടങ്ങാം നമുക്ക് അവൾക്കിപ്പം ആദ്യം ചെയ്യുന്ന എന്തായിരുന്നു പ്രീവെഡ്ഡിംഗ് അല്ലെ ആ അപ്പം പ്രീ വെഡ്ഡിംഗിൻ്റെ ഒന്ന് ആദ്യം ചെയ്യാണേ ചെയ്യുക പിന്നെ നമുക്ക് പിന്നെ ബാക്കി ഉള്ളതൊക്കെ നിങ്ങൾ അറേഞ്ച്മെൻറ്റ് ചെയ്തോളൂലേ നമ്മൾ ഒരു പത്തഞ്ഞൂറ് പേരിടെ ആ ഒരു അതിൽ കൂടുതൽ ചിലപ്പം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഒരു ആയിരം രൂപ ആയിരം പേരുടെ നിങ്ങൾ കണക്ക് കൂട്ടിക്കോ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് കൊടുക്കാം നമുക്ക് ഓഡിറ്റോറിയം നല്ലൊരു ഓഡിറ്റോറിയം ഇപ്പം എവിടെയാണ് ഉള്ളത്ന്ന് വെച്ചാൽ അവിടെ നമുക്ക് ചെയ്യാൻ വേണ്ടീട്ടാണ് അപ്പം പിന്നെ എല്ലാം കഴിഞ്ഞോ നിങ്ങളിപ്പം ആ ഫുഡ്ഡ് നമ്മൾ ബുഫെ ആക്കിക്കോ രണ്ടും കൂടെ രണ്ടും ഇരുന്നോട്ടെ ചിലപ്പം രണ്ടും അപ്പം ആ എല്ലാ സാധനങ്ങളും ഇരുന്നോട്ടെ നമുക്ക് ബുഫെ ആക്കീട്ട് ചെയ്യാൻ വേണ്ടീട്ടാണ് അപ്പം ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നിങ്ങൾ ഒന്ന് ഇട്ട് തരുവാണെങ്കിൽ നല്ലതായിരുന്നു

ഓക്കെ ഓക്കെ പിന്നെ വേറെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിപാടി അടിപൊളി ആയിട്ട് ഗംഭീരം ആയിരിക്കണം പിന്നെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഇനി എന്താ ആ ഡെക്കറേഷൻ കാര്യങ്ങളും അതൊക്കെ നിങ്ങൾ തന്നെ അല്ലെ ചെയ്യുന്നത് ഓക്കെ ഓക്കെ എപ്പോഴാണ് ഞാൻ നമുക്ക് ഈ ആഴ്ച്ച തന്നെ അപ്പം പ്രീ വെഡ്ഡിംഗ് ഷൂട്ട് നമുക്ക് തുടങ്ങാം വെഡ്ഡിംഗ് അടുത്ത മാസം പതിനാലാം തീയ്യതിയാണ് സെപ്റ്റംബർ പതിനാലിനാണ് അപ്പം അതിന് മുമ്പ് നമുക്കെല്ലാം അറേഞ്ച്മെൻറ്റ്സും എല്ലാം റെഡി ആക്കാം റെഡി ആക്കണം നന്നായി ഓ ചെയ്യാം ചെയ്യാം അതൊന്നും കുഴപ്പം ഇല്ല ഓക്കെ ഓക്കെ എന്നാൽ